പരതുന്നുണ്ട് പണ്ട് ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല പണ്ടുള്ള ജോലിയോ പഠിപ്പോ എല്ലാം വളരെ കുറവാണ് ഇപ്പോള് ഉള്ളവര്ക്ക് വിദ്യാഭ്യാസം നല്ലോണ്ണം ഉള്ളത് കൊണ്ട് എല്ലാരും നല്ലവണ്ണം പഠിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരോരുത്തര്ക്ക് ജോലി സംബന്ധമായിട്ട് ജോലിയിലും ഏര്പ്പെടുത്തുന്നുണ്ട് ജോലി നോക്കുന്നുണ്ട് എല്ലാം പണ്ടെല്ലാം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവാണ് ജോലി ഇല്ല ആ സമയത്ത് കെട്ടിച്ചു അയക്കുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ സാമ്പത്തികായോണ്ട് പഠിപ്പിക്കണ്ട ഒരു സാമ്പത്തികവും ഇല്ല അതെല്ലാം കൊണ്ട് ആരും അങ്ങനെ പഠിപ്പിക്കില്ല വിദ്യാഭ്യാസം കൊടുക്കാറില്ല ഇപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് എല്ലാവരും വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാന് താല്പര്യം ഉണ്ട് ജോലി വേണം ജോലിക്ക് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആള്ക്കാരെല്ലാം പഠിക്കുന്നുണ്ട് പണ്ടത്തേനെ പോലെ അല്ല പണ്ടാരും പഠിക്കാന് നിക്കലും ഇല്ല സാഹചര്യവും ഇല്ല പഠിപ്പിക്കേണ്ട സാഹചര്യവും ഇല്ല അതല്ല രണ്ടാം ക്ലാസ്സ് മൂന്നാം ക്ലാസ്സില് എല്ലാം ആവുമ്പോഴത്തേനെ തന്നെ വീട്ടില് ഇരിക്കേണ്ട അവസ്ഥയാണ് സാമ്പത്തികം കൊണ്ട് പിന്നെ കല്യാണം കഴിച്ചു വിടും പിന്നെ ജോലി ഇതില്ലാത്തോണ്ട് ജോലിക്കൊന്നും പോവാറും ഇല്ല വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ അധികവശവും ജോലിയിൽ താല്പര്യം ഉള്ള ആളാന്നു അതുകൊണ്ട് പഠിക്കുന്നത് കൊണ്ട് എല്ലാരും പോകുന്നുണ്ട് എല്ലാവര്ക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ട് പണ്ടത്തേനെ പോലെ അല്ല പണ്ടത്തേനെക്കാളും ഇപ്പോൾ എല്ലാവര്ക്കും ജോലി വാങ്ങണം എന്ന താല്പര്യം കൊണ്ട് എല്ലാവരും ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് ജോലി പഠനത്തിനു മുന്ഗണന കൊടുക്കുന്നുണ്ട് പണ്ട് എന്ന് വെച്ചാൽ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ഓരോരോ കുടുംബത്തിലും എല്ലാവരും പഠിക്കാണ്ട് വിദ്യാഭ്യാസം ഇല്ലാണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഉള്ള അവസ്ഥ അതുപോലെ ഇപ്പോൾ അതു പോലെയല്ല ഇപ്പോൾ എല്ലാവരും സാമ്പത്തികം വന്നു പഠിപ്പ് മുന്നോട്ടു കൊണ്ട് പോകുന്നുണ്ട് ജോലിയിൽ കരുതലുണ്ട് പണ്ട് സാമ്പത്തികം ഇല്ലാത്തോണ്ട് പണ്ടുള്ള ആളൊന്നും പഠിക്കലും ഇല്ല ജോലിയും ഇല്ല ഒന്നും ഇല്ല ഈയൊരു അവസ്ഥ ഇപ്പോള് അങ്ങനെ കാണുന്നില്ല അതാണ് പണ്ടത്തെ ഉള്ളവരുടെ പ്രശ്നം